ഹലോ മലബാർ റെസ്റ്റോറൻറ്റല്ലേ ആ ഞാനേ ഒരു രാവിലെ അതായത് ഏകദേശം ഒരു എട്ടര മണിക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു വൺ അവറിനുള്ളിൽ ഡെലിവർ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഇത് ഒൻപതേ കാലായി എന്നിട്ടും ഡെലിവർ ആയിട്ടില്ല ഞാനാണെങ്കിൽ നാല് പേർക്കുള്ള ഫുഡ് ആയിരുന്നു പറഞ്ഞിരുന്നത് വീട്ടിൽ രണ്ട് ഗെസ്റ്റും കൂടി ഉണ്ടായിരുന്നു അവരും വന്നിട്ടുണ്ട് അപ്പം ഇത് വരെ ഫുഡ് എത്തിയിട്ടില്ല അത് ഓൺ ദ വേയാണോ അതോ എപ്പോഴത്തേക്കിനി എത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാനായിരുന്നു അതെ അതെ വീട് ഒരു കിലോ മീറ്ററിനുള്ളിലാണ് പക്ഷെ ഇത് വരെയും ഡെലിവർ ആയിട്ടില്ല ഗെസ്റ്റും ഉണ്ട് അത്കൊണ്ടാണ് ഞാൻ പിന്നെയും കൂടെ കൂടെ അന്വേഷിച്ചത് ഇപ്പം എന്താ ചെയ്യുക അതെ അതെ നാല് പേർക്കുള്ള ഫുഡ്ഡാണ് പറഞ്ഞിരുന്നത് അതെ അപ്പവും വെജ് കറിയും ആണ് പറഞ്ഞതേ

ഓർഡർ പോയിട്ടുണ്ടായിരുന്നോ പക്ഷെ ഇത് വരെയും ഇവിടെ വന്നിട്ടില്ല അതാണ് ഞാൻ കോൾ ചെയ്യുന്നത് അതെ അതെ അതെ അതെ ഞാൻ എട്ടരക്ക് എട്ടരക്കാണ് വിളിച്ചത് എട്ടരക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒൻപതേ കാലാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അതെ ഗെസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ വരികയും ചെയ്തു ഓക്കേ എന്നാൽ എനി വേ ഒന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയണേ എന്താണ് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞേക്കണേ എത്തുമല്ലോ എന്താണെങ്കിലും ഒരു പത്ത് മിനിറ്റ് കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കേ